അതേ പറഞ്ഞോ എങ്ങോട്ടു പോവാനാണ് മൂന്നാറാണോ എന്നു പോവാനായിരുന്നു

മൂന്നാര് ഒരുപാട് അതുകൊണ്ടാണ് ആ അതെന്നാ ടൌണില് ചുമ്മാ പോകുന്നതാണോ അതോ നിങ്ങള് ടൂര് പോകുന്നതാണോ

ആ പ്രത്യേകിച്ച് അതു നമ്മള് പാറത്തോട്ടില്നിന്ന് മൂന്നാര് മൂന്നാര് പ്രോപ്പര് മൂന്നാറു വരെയാണെ നാന്നൂറ് രൂപയാകുമേ അപ്പോള് നിങ്ങള് രണ്ടുപേരുള്ളതുകൊണ്ട് ഷേർ ഇട്ടു തന്നാല് മതിയാവും ആ ഫുഡ് കഴിക്കാന് ഇവിടുന്നു പോയാല് ഇവിടുന്ന് ഒന്നര മണിക്കൂര് ദൂരം യാത്രയേ ഉള്ളു ഇവിടുന്ന് രാവിലെ പോകാണെങ്കിൽ മൂന്നാര് ചെന്നിട്ട് ഫുഡ് കഴിച്ചാല് മതി

ആ ചെയ്തോളൂ ആലോചിച്ചോളൂ നിങ്ങളെന്നിട്ട് ആലോചിച്ചിട്ട് സമയം പറഞ്ഞാല് മതി അപ്പോള് ഇപ്പോള് ഞാന് എന്നാല് അതനുസരിച്ചു വന്നേക്കാം വേറാരുമില്ലല്ലോ നിങ്ങള് രണ്ടുപേരല്ലേ ഉള്ളു ആ അത് കുഴപ്പമില്ല ചോദിച്ചിട്ട് നിങ്ങള് സമയം പോലെ പറഞ്ഞാല് നിങ്ങൾ സമയം പറഞ്ഞാല് മതി അതനുസരിച്ചു ഞാനങ്ങ് വരാം പാറത്തോട്ടില് വന്നാല്പ്പോരേ ആ എവിടെയാണു നിങ്ങള് താമസിക്കുന്നത് ആ ആ അറിയാമല്ലോ ആ അറിയാം അറിയാം അറിയാം

ഓ ആ ആനച്ചാല് വഴി പോവാം അതാണ് ഇച്ചിരികൂടെ വഴി എളുപ്പമുണ്ട് നല്ലവഴിയാണ് കുഴപ്പമില്ലാത്ത വഴിയാണ് ദൂരക്കൊറവുണ്ടല്ലോ അപ്പോള് നിങ്ങള്ക്കതനുസരിച്ച് വണ്ടി ക്കൂലി കുറയുമല്ലോ ആ അപ്പോള് നമക്ക് ആനച്ചാല് വഴിയങ്ങു പോവാം ആ ആ

ആ അത് കുഴപ്പമില്ല ചേച്ചീ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല ധൈര്യമായിട്ട് പോരെ അവിടം ആ അതിന്റെ സമയം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്നു പറഞ്ഞിട്ടേ നിങ്ങളെന്നോടൊന്നു പറഞ്ഞാല് മതി സമയം എന്താണെന്നൊക്കെ അപ്പോള് ഞാന് അതനുസരിച്ചു പാറത്തോട് ബീനാമ ചേടത്തീന്റെ അടുത്തു വന്നേക്കാം എന്നിട്ട് നമുക്ക് അതുവഴി പോയി കല്ലാറുകുട്ടിയില് ചെന്ന് ഫ്രണ്ടിനെയും കൂട്ടി കയറിപ്പോയാല്പ്പോരേ

ആ ആ ആ അത് കുഴപ്പമില്ല രാവിലെ പോവണ്ട സമയം കൃത്യം ചെയ്തിട്ട് എനിക്ക് നേരത്തെ തന്നെ വിളിച്ചേരേ റെഡിയായി വരേണ്ട സമയമുണ്ടല്ലോ ആ എന്നാല് ഓക്കെ ചേച്ചീ ഓക്കെ കുട്ടാ വിളിച്ചേര് കേട്ടോ